എനിക്ക് പ്രത്യേക കഴിവൊന്നുമില്ല എനിക്ക് മീൻ പിടുത്തത്തിൽ ഇച്ചിരി കഴിവുണ്ട് എന്നുവെച്ചാൽ നമുക്ക് വളരെ കുറെ കാര്യങ്ങളിലൂടെ മീൻ പിടിക്കാൻ അറിയാം നമുക്ക് വളരെ വ്യത്യസ്ത രീതിയിലൊക്കെ മീൻ പിടിക്കാൻ അറിയാം എന്ന് വെച്ചാൽ നല്ല മിഷേൻ ചൂണ്ട ഇട്ട് മിഷേൻ ചൂണ്ട എന്ന് പറയുമ്പോൾ അത് ഇട്ട് തന്നെ അല്ല അത് നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ രീതികൾ ഉപയോഗിച്ച് തന്നെ മീൻ പിടിക്കാൻ പറ്റും അത് നമുക്ക് ഇപ്പോൾ കാർഫിഷിങ് ആയാലും നമുക്ക് അതുപോലെ ഫ്രോഗ് ഫ്രോഗിലൂടെ ആയാലും സ്പൈഡർ ഹുക്ക് അങ്ങനെ പല രീതികൾ ഉണ്ട് അത് നമുക്ക് വികസിപ്പിച്ചാന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നത് യൂട്യൂബ്സിസിലെ ഓരോ ഫിഷിങ് ചാനൽ ഉള്ള വീഡിയോസ് കണ്ടിട്ടാണ് നമുക്ക് അതുപോലുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുക ആ ഒരു അങ്ങനെയാണ് അതൊക്കെ ഒന്ന് വികസിപ്പിച്ചെടുത്തത് ഇപ്പം നല്ലൊരു ഒരു പ്രത്യേക ഒരു കഴിവു പോലെയാണ് എന്നുവെച്ച് എല്ലാവരും അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരിതല്ല എല്ലാം ഇച്ചിരി കമ്മിറ്റ്മെൻറ് വേണം അതിനോട് എന്നാലേ ഉള്ളു നമുക്ക് അതൊരു ഇതാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ